ആ ഹലോ ആ ഹലോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു മറ്റേ കേരളത്തിലേക്ക് ഒരു ട്രിപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പത്തേക്കിന് അവിടുത്ത കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നത് ആയിരുന്നു എൻ്റെ റെസിഡൻസ് ഇപ്പോൾ ഡൽഹി ആണ് ആ അതെ അതെ ചെറുപ്പത്തു നിന്ന് കേരളം വിട്ടത് വിട്ടതാണ് ആ അത് അങ്ങനെ പറയാം വേണമെങ്കിൽ അത് ഇനി അത് അത് എനിക്ക് ഇന്ന് പ്ലാൻ ചെയ്യണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമ് എന്നു വച്ചാൽ അവിടെ വന്നാൽ കൂടുതലും കാണാൻ പറ്റണം അങ്ങനത്തെ ടൈമിംഗ് നിങ്ങൾ ചാർട്ട് ചെയ്ത് തരണം അതിനാണ് അവിടെ ഫെസ്റ്റിവെൽസ് ഒക്കെ നടക്കുന്ന ടൈമ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിരുന്നു ആ അതെ അതെ അതെ ഓക്കെ ഓക്കെ ആ എങ്കിൽ ഞാൻ വെയ്റ്റ് ചെയ്യാം ആ ഓ അങ്ങനെയാണ് അല്ലെ നിങ്ങൾ ഒന്ന് ഇങ്ങനെ ഇതിൽ ഓക്കെ ഓക്കെ നിങ്ങൾ ഈ അടുത്ത് ഈ രണ്ട് മാസത്തിന് ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് ചാർട്ട് ചെയ്ത് ആക്കിത്തരുമോ ആ ഓക്കെ ഓക്കെ ഇത് തന്നെയായിരുന്നു വാട്ട്സ്ആപ്പ് നമ്പറ് ഇതിൽ അയച്ചാൽ മതി ഓക്കെ ഓക്കെ